ഈ പറഞ്ഞ രോഗങ്ങളെല്ലാം കൊതുക് പരത്തുന്നതു കൊണ്ടുതന്നെ നമ്മളേറ്റവും ആദ്യം ശ്രദ്ധിയ്ക്കേണ്ടത് നമ്മുടെ വീടിനും പരിസരത്തും അല്ലെങ്കിലെവിടെ പൊതു പൊതുജനങ്ങളുള്ള എവിടെയായി കഴിഞ്ഞാലും കൊതുകിന്റെ വളർച്ച നമ്മൾ നിയന്ത്രിയ്ക്കണം അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പിന്നെ വെള്ളം എവിടെയെങ്കിലും കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ചാൻസ് ഇങ്ങനത്തെ ചെറിയ ചെറിയ ചിരട്ടകൾ പ്ലാസ്റ്റിക് കവറുകൾ അല്ലാത്ത ബോട്ടിലുകൾ ഇങ്ങനത്തെ സാധനങ്ങളിലൊക്കെ ചെറുതായിട്ട് വെള്ളം നിന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് കൊതുക് മുട്ടയിട്ട് കൊതുക് പെരുകാനുള്ള ചാൻസുണ്ട് അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ അതാണ് ശ്രദ്ധിയ്ക്കേണ്ടത് പിന്നെ നമുക്കെല്ലാവർക്കും അറിയാം അധികം കൊതുകൊന്നും മീന്സ് അധികം കൊതുകുള്ള സ്ഥലത്ത് അധികം നമ്മൾ നേരം ഇരിക്കാതിരിയ്ക്കുക കൊതുകിന്റെ കടി മേക്സിമം അവോയ്ഡ് ചെയ്യുക പണ്ടൊക്കെ ആണെങ്കിൽ നമ്മുടെ പഞ്ചായത്തിൽന്നിന്നൊക്കെ വന്നിട്ട് എന്തോ ചെയ്യുമായിരുന്നു പിന്നെ ഫുള്ള് നമ്മളിങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്തൊക്കെ എന്തോ ഒരു കെമിക്കൽ പോലത്തൊരു സാധനം അടിയ്ക്കുമായിരുന്നു അപ്പോൾ അതൊക്കെ നശിച്ചു പോകുമായിരുന്നു ഇപ്പം നിലവിൽ അതൊന്നും കാണാനില്ല